ആര്ഷഭാരതത്തിലെ അനാദിയായ മതമാണ് ഹിന്ദുമതം അത് എന്ന് ഉത്ഭവിച്ചു എന്നുള്ളത് യാതൊരു നമുക്ക് രേഖകളും ഇല്ല അതിനകത്ത് ഇപ്പോൾ ഒരുപാട് ആശയങ്ങളും അവിടൊക്കെ ആചാരങ്ങളും എല്ലാം ഉള്കൊണ്ടതാണ് ഹിന്ദുമതം ക്രിസ്തുമതമാണെങ്കില് യേശു ക്രിസ്തുവിന്റെ ജന്മം മുതലാണ് നമ്മുടെ ക്രിസ്തു മതത്തിനുണ്ടാകുക അതിനെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ക്രിസ്തുവിനു ശേഷമുള്ളതാണ് ബാക്കിയെല്ലാം നമ്മൾ ബിസിയെന്നാണു പറയുന്നത് അങ്ങനെ ക്രിസ്തുവിന്റെ ജനനത്തിനു ശേഷം ക്രിസ്തു പ്രചരിപ്പിച്ച മതത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ക്രിസ്തുമതം ബുദ്ധമതം നമുക്ക് മതം പറയുന്നുണ്ട് പക്ഷെ ബുദ്ധമതം ഒരു വിഭാഗം ബുദ്ധന് അദ്ദേഹം രാജാവായിരുന്നു അതിനുശേഷം ബോധി വൃക്ഷത്തിന്റെ ചുവട്ടില് ഇരുന്നു ധ്യാനിക്കുകയും അദ്ദേഹത്തിനുണ്ടായ ഒരു ബോധോദയത്തിനു ശേഷമാണ് ബുദ്ധമതം നല്ല രീതിയില് അദ്ദേഹത്തിന്റെ ആശയങ്ങള് പ്രചരിപ്പിച്ചു തുടങ്ങിയത്